ഹലോ

ആ ആ ഓഫറിപ്പോൾ ബേബി സെക്ഷൻസിലാണ് ഇപ്പോൾ ഓഫർ കൂടുതലായിട്ട് ഉള്ളത് ബേബീസിന് ഡ്രസ്സ് അവർക്ക് ഡ്രസ്സ് അലക്കാൻ പറ്റുന്ന ഓരോ സംഭവങ്ങൾ അക്സെസ്സറീസ് അങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങളിപ്പോൾ ഫിഫ്റ്റീൻ പെർസെന്റജ് ആണ് പതിനഞ്ച് പെർസെന്റജ് ഡിസ്കൗണ്ട് ആണ് ഉണ്ട് നമ്മളെ കിച്ചൺ ഐറ്റംസിന് വരുന്നുണ്ട്

വാഷിംഗ് മെഷീന് സ്റ്റാർട്ടിങ്ങ് വരുന്നത് ട്വന്റി തൗസന്റ് ആണ് സ്റ്റാർട്ടിങ്ങ് ക്വാളിറ്റി ഐറ്റം ആണ് ഓഹ് പെരുന്നാളിന്റെ ഓഫർ ഉണ്ട് അത് ഇപ്പോൾ അടുത്താഴ്ച്ച കൊണ്ട് തീരും പച്ചക്കറിക്ക് എല്ലാത്തിനും തന്നെ ഈ പറഞ്ഞപോലെ ഫിഫ്റ്റീൻ പെർസെന്റജ് ഓഫറില്ല ടെൻ പെർസെന്റജ് ഓഫറാണ് ഇപ്പോഴുള്ളത് അതെ അതെ തക്കാളിക്ക് ഇപ്പൊൾ എയ്റ്റി ഫൈവ് ആണ് രണ്ട് തക്കാളിയുണ്ട് രണ്ട് ഐറ്റംസ് തക്കാളി ഉണ്ട് അതെ അതെ അപ്പം നാടനിൽ വരുന്നത് എയ്റ്റി ഫൈവ് ആണ് മറ്റേതിന് വരുന്നത് എയ്റ്റി ആണ് അതെ അത് നാടൻ വന്നിട്ട് ഓർഗാനിക് ആയിട്ടാണ് അതിന്റെയൊക്കെ സാധാ റേറ്റ് തന്നെ വേണ്ടക്കയൊക്കെ തന്നെ രണ്ട് സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കണതും മറ്റേത് അല്ലാതെ നമ്മൾ അവടെത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സെക്ഷൻസിൽ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് ഏത് തരമാണെന്നൊന്നും ഒക്കെത്തന്നെ ഞങ്ങളുടെ പേജ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ സെക്ഷൻ കാര്യങ്ങൾ അടക്കം നമ്മൾ പേജിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ ഫോർ സർവീസ്